കുഴൽക്കിണറ് ഇപ്പോൾ എന്താ പറയുക അതിൽ നിന്ന് വെള്ളമെടുക്കാൻ തന്നെയാണ് സാധാരണ എല്ലാവരും യൂസ് ചെയ്യുന്നത് എന്താ പറയുക ചെറിയ ഒരു രീതിയിൽ എന്താ പറയുക വലിയ വലിപ്പത്തിലുള്ളതോന്നുമല്ല ചെറിയൊരു വട്ട വൃത്തത്തിലാണ് ഇത് നിർമ്മിക്കുന്നത് അത് മെഷീൻ ഒക്കെ ഉപയോഗിച്ചിട്ട് അതായത് വലിയ ലോറികളിലൊ വല്ല ഇതിലൊക്കെ കൊണ്ടുവന്ന് മെഷീനിലാണ് ഇത് അടിച്ചുണ്ടാക്കുന്നത് ഈ കുഴിക്കുന്നതൊക്കെ മെഷീനുപയോഗിച്ചിട്ടാണ്

ഇതിൽ നിന്ന് കോരിയെടുക്കാനും കഴിയും അതുപോലെ മോട്ടർ ഉപയോഗിച്ച് അടിച്ച് കയറ്റുന്നതും നമ്മള് കണ്ടിട്ടുണ്ട് കുടിക്കാനും എല്ലാ ആവശ്യങ്ങൾക്കും ആ വെള്ളം യൂസ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ ഗ്രാമത്തിലെന്ന് പറയുമ്പോൾ അങ്ങനെ വെള്ളത്തിന് വേണ്ടിയിട്ട് എല്ലാവരും അങ്ങനെ പൊതുവെ ഒരു കിണറിനെ ആശ്രയിക്കുന്നത് നമ്മള് കണ്ടിട്ടില്ല അതായത് എല്ലാവരും തന്നെ എന്താ പറയുക ഈ സ്വന്തം വീടുകളിൽ തന്നെ കുഴൽ ഈ കുഴൽക്കിണർ ഉപയോഗിച്ചിട്ടാണ് അവര് വെള്ളം കുടിക്കാനും കുളിക്കാനൊക്കെ എടുക്കുന്നത് അവരുടെ ആവശ്യങ്ങൾക്ക് എന്തിനാ എല്ലാത്തിനും തന്നെ എല്ലാ വീടുകളിലും ഇപ്പോൾ ഓരോ കുഴൽക്കിണറ് നിർമ്മിക്കുകയും അതിൽ നിന്നും വെള്ളം എടുക്കുകയാണ് സാധാരണ നമ്മുടെ ഗ്രാമങ്ങളിലൊക്കെ ഞങ്ങള് കണ്ട് വന്നിട്ടുള്ളത് അതായത് പഞ്ചായത്ത് കിണറ് അങ്ങനൊന്നും ഇതുവരെ ഗ്രാമത്തില് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല ശ്രദ്ധിച്ചിട്ടില്ല എന്നല്ല അങ്ങനെ അധികം ഒന്നും ഇല്ല എല്ലാവരും അങ്ങനെക്കെ എല്ലാം അവരും അവരുടേതായ വീട്ടിലുള്ള കുടിവെള്ള ശ്രോതസ് ഉപയോഗിച്ചിട്ടാണ് എന്താ പറയുക വെള്ളം ആവശ്യത്തിന് എടുക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത്